എൻ്റെ കുടുംബം എന്നു പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നാല് അംഗങ്ങളാണ് ഉള്ളത് ഞാനും എൻ്റെ അമ്മയും രണ്ട് സഹോദരങ്ങളും അച്ഛൻ നേരത്തെ മരിച്ചു പോയി ഇപ്പോൾ ഞങ്ങൾ നാലുപേരാണ് ഉള്ളത് ഞങ്ങൾ നാലു പേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അവരൊക്കെ ഓരോ ജോലികൾ ചെയ്തു ജീവിക്കുകയാണ് ഈ നാലു നാല് അംഗങ്ങൾ മാത്രം ഉള്ളുവെങ്കിലും ഞങ്ങൾ ചെറിയൊരു കുടുംബം ആണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വിരലിൽ എണ്ണാവുന്നത്രയും സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതിലല്ല നല്ല രണ്ട് സുഹൃത്ത് ആണെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ ഉള്ളതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞ നല്ല നല്ല സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം മാത്രമാണ് ഞാൻ എപ്പോഴും മുൻപോട്ട് കൊണ്ടു പോവാറ് എന്നിരുന്നാലും നല്ല ഒരു കുടുംബത്തേയും അതേപോലെ നല്ല കുറച്ച് സുഹൃത്തുക്കളെയും എനിക്ക് കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ്